ആ യെസ് വരൂ ആ വരൂ വരൂ ഇരിക്കൂ

ആ പറയൂ പറയൂ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് അതെ ഓക്കെ ആ എട്ട് ആ ഓക്കെ ഓക്കെ ഏതാണ് ഏത് ക്ലാസ്സിലേക്ക് ആണ് അഡ്മിഷൻ വേണ്ടത് ആ ഓ എത്ര പേർ ഉണ്ട് രണ്ട് പേർ ഉണ്ടോ ഓ ഓക്കെ ഓക്കെ

ആ അതെ ഓ ഓക്കെ ഇവിടെ അപ്പോൾ വീട് എടുത്തിട്ടുണ്ടോ ഇവിടെ അടുത്ത് വീട് എടുത്തത് വീട് വാങ്ങിച്ചത് ആണോ അതോ റെൻറ്റിനാണോ ആ ഓക്കെ ആ ഓക്കെ അല്ല ക്വാർട്ടേഴ്സിൽ ആണോ ഉദ്ദേശിച്ചത് റെൻറ്റ് ആ ഓക്കെ ഓക്കെ നമ്മള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ച്ച ആയി അഡ്മിഷൻ തുടങ്ങിയിട്ട് ഒരാൾ എൽ കെ ജിയും ഒരാൾ രണ്ടാം ക്ലാസ്സും അല്ലേ ഓക്കെ ഓക്കെ ഫീസ് നമ്മൾ ഇപ്പോൾ എൽ കെ ജിയെന്ന് പറയുമ്പോൾ എൽ കെ ജിയിലേക്ക് നമ്മൾ ഇപ്പോൾ അഡ്മിഷൻ പറയുമ്പോൾ ഒരു അയ്യായിരം രൂപ ആണ് വാങ്ങിക്കുന്നത് അതായത് അതിന് നമ്മൾ കുട്ടിക്കുള്ള യൂണിഫോം എല്ലാ കാര്യങ്ങളും ഉണ്ട്

ആ ബുക്സ് പറയുമ്പോൾ എൽ കെ ജിക്ക് കുഴപ്പമില്ല ഈ ഇതിൽ തന്നെ പെടുന്നുണ്ട് ഈ അയ്യായിരം രൂപയിൽ നമ്മൾ ബുക്സും എല്ലാം കൂടി കാരണം എൽ കെ ജി കുട്ടികൾക്ക് അധികം ബുക്സ് ഇല്ലല്ലോ പിന്നെ രണ്ട് ആ അങ്ങനെ പരിപാടികൾ ഉണ്ട് പിന്നെ അതായത് പിന്നെ രണ്ടാം ക്ലാസ്സിലേത് ഫീസ് ഉണ്ട് പതിനഞ്ചായിരം രൂപ ആണ് ഇപ്പോൾ ഫീസ് അഡ്മിഷൻ പിന്നെ ബുക്സിന് വേറെ ഫീസ് ഉണ്ട് ബുക്സിന് വേറെ ഫീസ് ഉണ്ട് പിന്നെ അതുപോലെ യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ആ യൂണിഫോം എക്സ്ട്രാ ആണ് യൂണിഫോമിന് ഒര് തൗസൻഡ് ഫീസ് ഉണ്ടാവും രണ്ട് ജോഡി യൂണിഫോം അതിൽ പെടും

ആ അത് നമ്മൾ താൽപര്യം അതായത് പാരൻറ്റ്സിൻ്റെ താൽപര്യം അനുസരിച്ചാണ് നമ്മൾ ബസ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ചിലവർ അവർ എന്താണ് പറയുക വണ്ടി ആയിട്ട് വരുന്നത് ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ ബസ് ആവശ്യം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യും

ആ അതെ അപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ബസ് ഉണ്ട് ഇവിടെ ബസ് ബസ് നമ്മൾ സൗകര്യം ഉണ്ട് ഇവിടെ അതിന് നമ്മൾ ഒരു ഫീസ് ഉണ്ട് അതിന് ഒരു ആറായിരം രൂപ മന്ത്ലി ഫീസ് വരുന്നുണ്ട് അതായത് കിലോമീറ്ററിൻ്റെ ഇതിന് അനുസരിച്ച് ആണ് ഫീസ് ചോദിക്കുന്നത് ഇവിടെനിന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഒര് അഞ്ച് കിലോമീറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ വീട്ടിൽനിന്ന്

ആ എന്തായാലും ചെറിയ ചെറിയ കുട്ടികൾ അല്ലേ അപ്പോൾ നമുക്ക് ചെറിയൊരു വാൻ ഉണ്ട് സൗകര്യം അനുസരിച്ച് നമുക്ക് വയ്ക്കാം വണ്ടി ആ നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ ആയത് കൊണ്ട് എൽ കെ ജിയിൽ ഇല്ല നമ്മൾ ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ കലാപരമായിട്ട് ഉള്ള ഓരോ ഡ്രോയിംഗ് ക്ലാസ്സ് ഡാൻസ് പാട്ട് പിന്നെ അതുപോലെ ഓരോ എക്വിപ്മെൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന അങ്ങനെ സംഭവങ്ങൾ അത് നമ്മള ഇവിടെ ഉണ്ട് അല്ല അല്ല നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യൽ ഒരു പീരീഡ് പോലെ കൊടുക്കുകയാണ് ക്ലാസ്സ് ഒരു കോച്ചിംഗ് കൊടുക്കുകയാണ് ക്ലാസ്സ് കഴിഞ്ഞിട്ട് അല്ല ക്ലാസ്സിന് ഒരു ഒരു ദിവസം ഒരു പീരീഡ് പോലെ കൊടുക്കുകയാണ് ആ അങ്ങനെ ആണ് കൊടുക്കുന്നത് കാരണം ആ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഡെയിലി ക്ലാസ്സ് കൊടുത്താൽ ആണ് കുട്ടികൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കഴിവ്

അതെയതെ നമ്മൾ മ്യൂസിക് ക്ലാസ്സ് ഡ്രോയിംഗ് ക്ലാസ്സ് ഇപ്പോൾ ചെറിയ കുട്ടികൾ ആയത് കൊണ്ട് നമ്മൾ അതിന് ഒരു തൗസൻഡ് വെച്ചിട്ട് ആണ് വാ കൊടുക്കുന്നത് ഫീസ് അതെ ഒരു മന്ത്ലി തൗസൻഡ് വെച്ചിട്ട് ഒരു ക്ലാസ്സിന് അത് ഇപ്പോൾ ഡെയിലി ക്ലാസ്സ് ഉണ്ടാവില്ല നമ്മൾ ഇപ്പോൾ എന്താണ് പറയുക ഒരു വീക്കിൽ രണ്ട് ക്ലാസ്സ് മൂന്ന് ക്ലാസ്സ് ഒക്കെ ആണ് കൊടുക്കുക ആ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇവിടെ റിസപ്ഷനിൽ അവിടെ പോയി കഴിഞ്ഞാൽ അന്വേഷിച്ചാൽ കാര്യങ്ങൾ അറിയും അല്ല നിങ്ങൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് വെക്ക് കാരണം അഡ്മിഷൻ ഒരുപാട് വരുന്നുണ്ടേ കുട്ടികൾ ഒരുപാട് ഉണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ഒന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സൗകര്യം ആയി ആ നിങ്ങൾ ഫ്രണ്ട് ആ ഓഫീസിൽ ഓ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നാലും മതി നിങ്ങൾ എന്തായാലും ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തിട്ട് പോവുക അപ്പോൾ പിന്നെ ഞങ്ങൾ വിളിക്കാം കാരണം ബുക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കുറേ കുട്ടികൾ വരുന്നുണ്ടേ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായാലും ഇന്ന് ബുക്ക് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ശരി എന്നാൽ കാണാം